കർഷകർ കൃഷി ചെയ്യാൻ പിന്നെ പ പാട്ടത്തിന് ഏക്കർ കണക്കിന് സ്ഥലവും ഇതൊക്കെ എടുത്തിട്ടാവും കൃഷി ചെയ്യുക അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ കാലാവസ്ഥ കാരണം അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ കാരണം ഒക്കെ കൃഷി നശി നശിച്ചു പോയിട്ടുണ്ടാവും അങ്ങനെ കൃഷിക്കാർ സങ്കടത്തിലും ഇതിലൊക്കെ ആകുമ്പോൾ ആത്മഹത്യ ചെയ്യും അതുപോലെ കൃഷി ഉണ്ടാക്കിയിട്ട് ആ സാധനങ്ങൾ അതിന്റെ അതുപോലെ കൊ ജനങ്ങളിലേക്ക് എത്തിക്കാനുമൊന്നും കഴിയാത്തതിന്റെ ബുദ്ധിമുട്ടിലും സ സങ്കടത്തിലൊക്കെ ചിലപ്പോൾ മരിച്ചു പോവും അപ്പോൾ അതിനെന്താണ് വെച്ചാൽ സർക്കാർ ഭാഗത്തുനിന്ന് എന്താണ് വേണ്ടത് വെച്ചാൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും പിന്നെ കൃഷി വിളവ് എടുക്കുമ്പോൾ അത് നശി നശിക്കാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം ചെയുവാണെങ്കിൽ കർഷകന് കുറേ ആത്മഹത്യയിൽ നിന്നൊക്കെ പിന്മാറാം അതേപോലെ വന്യമൃഗങ്ങൾ ശല്യം കൊണ്ട് കൃഷി നശിച്ചു പോയിട്ടുണ്ടാവും വെള്ളം കിട്ടാത്ത കാരണത്തോലെ നശിച്ചിട്ടുണ്ടാവും അപ്പം വെള്ളം കൃഷി ചെയ്യാനുള്ള വെള്ളം വെള്ളത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുവാണെങ്കിലും അതുപോലെ വന്യമൃഗങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഒക്കെ ഇന്ന് കൃഷി ചെയ്യണ ആൾക്കാർക്ക് അത്രയും പിന്നെ ആത്മഹത്യയിൽ നിന്ന് അവർ കുറേ മെച്ചപ്പെടും